ഞങ്ങള് നിർമ്മിക്കുന്ന വസ്ത്രത്തിൻ്റെ ഡിസൈന് പാറ്റേണൊക്കെ തിരഞ്ഞെടുക്കുന്നത് ചിലപ്പോള് വേറാരെങ്കിലുമൊക്കെ ധരിച്ചതു കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിലേതെങ്കിലും മീഷോ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ ഇങ്ങനെ നോക്കും അതിലൊക്കെ ഓരോ വസ്ത്രത്തിന്റെയും ഫോട്ടോസും ഡിസൈൻസൊക്കെ ഉണ്ടാവും അതില് നോക്കും പിന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ ഇന്ന മോഡൽ അങ്ങനൊക്കെ തന്നെ പിന്നെ ഷോപ്പിലൊക്കെ മോഡൽ വച്ചതും അതൊക്കെ നോക്കും

അഭിപ്രായം ചോദിക്കും മക്കളോടു ചോദിക്കും പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ അതെങ്ങനെയുണ്ട് മോഡൽ അടിപൊളിയാണോ എന്നൊക്കെ ചോദിക്കും പിന്നെ ഓൺലൈൻ ഓൺലൈൻ തന്നെ ഓൺലൈന് ആണ് കൂടുതൽ നോക്കുന്നത് അതുപോലെ ആശയങ്ങളൊക്കെ നോക്കുന്നത് അതുപോലെ അടിക്കുന്ന രീതികളൊക്കെ നോക്കുന്നത് യൂ ട്യൂബില് ഒന്നു രണ്ട് ചാനലുണ്ട് കൂടുതലായിട്ടും നോക്കുന്ന രണ്ടു ചാനല് അതില് നോക്കും അതില് നോക്കിയിട്ട് അളവെടുക്കാനും അവര് വളരെ വ്യക്തമായിട്ടതു പറഞ്ഞു തരുന്നുണ്ട് അപ്പോള് അതില് നോക്കിയിട്ട് അളവെടുക്കും വെട്ടോ അതില് നോക്കി നോക്കി പഠിക്കും അതില് നല്ല നല്ല മോഡൽസ് അവരിടും അപ്പോള് അവരതില് കൂടുതൽ ടാലന്റഡായിരിക്കും ഇപ്പോള് അതേപോലെ നോക്കി വെട്ടിയെടുക്കും വളരെ പെർഫെക്റ്റാവും അപ്പോള് ഓൺലൈനാണ് ഓൺലൈൻ അതുപോലെ അങ്ങനെ ഇഷ്ടപ്പെട്ട ബ്രാന്റ് അങ്ങനെയൊന്നുമില്ല എല്ലാ ബ്രാൻഡും ഉപയോഗിക്കുന്നുണ്ട് ഏതാണ് ഉപയോഗിക്കുന്നത് മീൻസ് ഏത് ബ്രാൻഡാണെങ്കിലും മോഡൽ ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ ഇന്ന ബ്രാൻഡ് എന്നൊന്നുമില്ല യൂ ട്യൂബ് തന്നെ പ്രധാനം യൂ ട്യൂബിലുള്ള വീഡിയോസ് അതുപോലെ മോഡൽസ് ഡ്രസ്സിൻ്റെ കളക്ഷൻസൊക്കെ കണ്ട് അതേപോലെ ചെയ്യും പിന്നെ സുഹൃത്തക്കളോടു ചോദിക്കും അപ്പോള് അവര് അവരുടെ അടുത്ത് മോഡലൊക്കെ ഉണ്ടെങ്കില് അവരും അയച്ചുതരും പിന്നെ യൂ ട്യൂബില് വീഡിയോ അവര് അടിച്ച് എങ്ങനൊക്കെ അടിക്കും ചില ആ ഒരു വീഡിയോ ഉണ്ടാവും അതുപോലെ ഏതൊക്കെ മോഡലിൻ്റെ അത് വീഡിയോ ഉണ്ടാവും അതുപോലെ ഡ്രസ്സ് സെയിൽ ചെയ്യുന്ന വീഡിയോസ് ഉണ്ടാവും പിന്നെ നമ്മളടിച്ചു കൊടുക്കുന്നവര് അവര് ചിലപ്പോള് ഡിസൈൻ പറഞ്ഞുതരും ഏത് ഡിസൈനിലാണ് അവർക്കടിക്കണ്ടത് എന്നൊക്കെ അവര് പറഞ്ഞുതരും അങ്ങനെയക്കെയാണ് സ്റ്റിച്ചിങ്ങ് ചെയ്യാറുള്ളത് വളരെ നല്ല ഡ്രസ്സുകള് നന്നായി നല്ല മോഡലിങ്ങനെ തയ്ച്ചുവരുമ്പോള് അതിൻ്റൊരു പെർഫെക്ഷനൊക്കെ വരുമ്പോ ള് നമ്മളുടെയൊരു സന്തോഷം അതു വേറെ തന്നെ ഇപ്പോള് പ്രധാനമായിട്ടും യൂ ട്യൂബ് അതുപോലെ മീഷോ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഇതിലൊക്കെ പിക്ച്ചേഴ്സും